കർഷകർക്ക് ഏറ്റവും നല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ട് നമ്മള് ഒന്നുകിൽ ഗവൺമെന്റ് നേരിട്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അവര് കുറച്ച് കർഷകർ കൂടി ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുക അവരുടെ ശുദ്ധമായ പ്രൊഡക്ട് അവിടെത്തന്നെ വിൽക്കാനുള്ള സംരംഭങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയുമോ നമ്മുടെ ഈ ഇടനിലക്കാരില്ലാതെ ഡയറക്ട് വില്പനയിൽ എത്തുമ്പോൾ നമുക്ക് ക്യാഷ് കുറച്ച് കൂടുതൽ കിട്ടും ഇടനിലക്കാർക്ക് പോയി എല്ലാവർക്കും പോയി കർഷകരിൽ എത്തുന്നത് മിതമായ തുക മാത്രമായിരിക്കും അപ്പോൾ നമ്മള് നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങുക ഹൈടെക് സംരംഭങ്ങൾ തുടങ്ങുക അപ്പോൾ സമയം നഷ്ടമില്ലാതെ വേഗം വേഗം കാര്യങ്ങൾ നടക്കാൻ പറ്റും പിന്നെ നമ്മുടെ വിളവുകൾ വച്ച് കർഷകരുടെ വിളവുകൾ വച്ച് കൂടുതൽ ഉല്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഞാൻ പറയട്ടെ വാഴക്കുല വാഴക്കുല വെച്ചിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കി വിൽക്കാം ചിപ്സിന് നല്ല പൈസയുണ്ട് ചക്ക വെച്ച് ചക്ക വേണമെങ്കിൽ ചക്ക ഒരു കർഷകന് ചക്ക കുറേ ചക്ക പ്ലാവ് ഉണ്ട് വച്ചോളൂ അത് ചക്ക വറുത്തത് ആക്കാം ചക്ക ജാം ആക്കാം സ്ക്വാഷ് ആക്കാം ചക്ക വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാം പ്രിസർവേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ചേമ്പ് ചേന കാച്ചില് കുമ്പളങ്ങ മത്തങ്ങ ഇതൊക്കെ വിപണിയിൽ എത്തുമ്പോൾ നല്ലൊരു ക്യാഷ് കിട്ടുന്ന ഇതാ കുറെ മാങ്ങയുള്ള ഒരു ഒര് കർഷകനാണെങ്കിൽ നമുക്ക് തൊറ മാങ്ങി ഉണ്ടാക്കി വെക്കാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംരംഭം അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു സംരംഭം വഴി നമ്മൾ അതൊക്കെ വിറ്റൊഴിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം നമ്മളിലേക്ക് എത്തിച്ചേരാൻ പറ്റും